ഇപ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് വഴങ്ങുക കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നമുക്ക് നല്ല ആരോഗ്യവാനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ കൂടുതലായിട്ടും നമ്മൾ യോഗയിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത് നമ്മൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് രാവിലെ ഓടുക ആ ഓടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ശരീരം നല്ല രീതിയിൽ വിയർക്കും നമ്മളുടെ ശരീരം നല്ല അടിപൊളിയായിട്ട് നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യും അപ്പം നമുക്ക് കൂടുതലായിട്ട് നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ശരീരം അതിനനുസരിച്ച് നമുക്ക് മൈൻറ് ഫ്രീ ആകും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽത്തന്നെ നമുക്ക് നമ്മക്ക് നല്ല രീതിയിലുള്ള ഓർമ്മശക്തീം കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടീട്ട് സാധിക്കും നമ്മള് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടുതലായിട്ടും നമ്മള് യോഗായൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ളാ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പല രീതിയിലുള്ള ഉപാസനകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്